വിദ്യാഭ്യാസം തൊഴിൽ മേഖലയിൽ വയനാട് ജില്ലയിൽ പിന്നെ എല്ലാവർക്കും തന്നെ അധികം ആൾക്കാർക്കും തന്നെ ജോലിക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വിദ്യാഭ്യാസമെന്നു പറയുമ്പോൾ പണ്ടത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വിദ്യാഭ്യാസത്തിനും പിന്നെ യാത്ര ചെയ്യാനും എല്ലാത്തിനും ബസ്സുകളും എല്ലാം ഉണ്ട് പണ്ടത്തെപ്പോലത്തൊരു കഷ്ടപ്പാട് ഇന്നത്തെ കുട്ടികൾക്കും ഇല്ല തൊഴിലിനാണെങ്കിലും എവിടെയെങ്കിലും ചെന്നാൽ എന്തെങ്കിലും ജോലികളും കിട്ടും അതിനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ

പിന്നെ പരിശീലനമെന്ന് പറയുമ്പം കുട്ടികൾക്ക് എല്ലാം പിന്തുണയും ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ട്യൂഷൻ സെൻ്റർ എല്ലാ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ തന്നെ ഇവിടെ അടുത്തടുത്തു തന്നെയുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോഴത്തെ മക്കൾ പഠിക്കാനൊന്നും ഒരു മിടുക്കന്മാരാണ് പക്ഷേയെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ സ്വഭാവത്തിലും വ്യത്യസ്ഥ സ്വഭാവങ്ങളാണ് നല്ല കുട്ടികളും ഉണ്ട് അതിൽ നന്നല്ലാത്ത കുട്ടികളും ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ ആയാൽ അവരവർക്ക് തന്നെ നല്ലത് അതുകൊണ്ട് ഇവിടെ പഠിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല വയനാട് ജില്ല അത്ര മോശപ്പെട്ട വയനാടൊന്നുമല്ല എല്ലാവർക്കും നല്ല രീതിയിലുള്ള തൊഴിലും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ് വയനാട്